അടുക്കളയിലുള്ള പാത്രങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പണ്ട് കാലത്തൊക്ക മൺചട്ടികൾ ഉണ്ടായിരുന്നു മൺചട്ടികൾക്ക് ആണെങ്കിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ നല്ലതായ നല്ല നല്ല രുചി വായിക്ക് രുചിയായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ന് നന്നായി എന്നു പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അലുമിനിയം പാത്രങ്ങളായി അത് കഴിഞ്ഞു സ്റ്റീൽ പാത്രങ്ങളായി അതു കഴിഞ്ഞു പിന്നെ നോസ്റ്റിക്ക് പാത്രങ്ങളായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻറ്റാരിയം ആയി ചെമ്പ് പഴയത് ചെമ്പായിരുന്നു ചെമ്പ് കാലങ്ങളൊക്കെ ആയിരുന്നു ചെമ്പ് കലങ്ങൾക്ക് ആണെങ്കിലും നെല്ല് പുഴുങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ കറി പാത്രങ്ങൾ പ്ലാസ്റ്റിക്ക് നോൺസ്റ്റിക്ക് പാത്രങ്ങൾ തവ സ്റ്റീൽ പാത്രങ്ങൾ പ്ലേറ്റ് കുപ്പി പ്ലേറ്റ് വസ്തു മറ്റേ പേപ്പർ പ്ലേറ്റ് ഡിസ്പോസിബ്ള് എന്നു വേണ്ട എല്ലാവിധ പാത്രങ്ങൾ പാത്രങ്ങളുടെ ഉപയോഗമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പാത്രങ്ങൾക്ക് ഉണ്ടാവുന്നതായ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ മൺചട്ടിയിലാണ് എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് കറി വയ്ക്കാനും കഞ്ഞി ചോറ് ചോറ് വയ്ക്കാനൊക്കെ അന്ന് മൺകലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചത് അന്നൊന്നും ഓരോ കൂടുതലായിട്ടുള്ള രോഗങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പുതിയ പുതിയ പാത്രങ്ങൾ നോൺസ്റ്റിക്ക് തവ അലുമിനിയം മോശമായ അലൂമിനിയം ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അത് അതിന് അകത്ത് ശരീരം ശരിക്കും മനുഷ്യ ശരീരത്ത് ഒരു മനുഷ്യന് ദോഷം ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ നല്ലതായ പാത്രങ്ങളെന്ന് പറഞ്ഞാൽ പഴയ മൺചട്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പുതിയ ടെക്നോളജി കൂറ്റുന്നതിന് അനുസരിച്ചു അനുസരിച്ചു അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരുന്നു നോൺസ്റ്റിക്ക് തവ കാര്യങ്ങൾ എണ്ണ വേണ്ട അത് ഒരു ദോശ ചുടാനോ അപ്പം ചുടാനൊക്കെയാണെങ്കിൽ അതിൽ എണ്ണ വേണ്ട ഒരു മുട്ട ഓംലെറ്റ് അടിക്കണമെങ്കിൽ ആണ് അത് തവയ്ക്ക് ഉണ്ട് നടക്കും ഒരു മൺകലം ആണെങ്കിൽ അത് നടക്കത്തില്ല അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഇൻ്റാരിയ ആയി ഇൻറ്റാരിയ പാത്രത്തിലാണ് എന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചു മതി ഇൻറ്റാര്യം ഇൻറ്റാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അലുമിനിയത്തിലാണ് എന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ കറി ചവട്ടിൽ പിടിക്കും സ്റ്റീൽ പാത്രമാണെന്നുണ്ടെങ്കിൽ ചൂട് കൂട്തല് കറണ്ട് അടുപ്പിൽ വയ്ക്കാം സ്റ്റീലിൻ്റെ പാത്രം വേണമെങ്കിൽ കറണ്ട് അടുപ്പ് ഇൻഡക്ഷൻ കുക്കറ് കാര്യങ്ങളൊക്കെ എത്ര ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചൂടാകാൻ പെട്ടെന്ന് ചൂടാകാൻ ചൂടാകുന്നത് നോക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ പാത്രങ്ങൾ കൂടുതലായിട്ടും എല്ലാവിധ പാത്രങ്ങൾ ചീനച്ചട്ടി ആയിട്ട് ആണെങ്കിലും ഗ്ലാസായിരുന്നാലും ചില്ല് ഗ്ലാസ് ആണെങ്കിലും ഗ്ലാസാണെന്നുണ്ടെങ്കിൽ കഴുകി വയ്ക്കാം ചില്ല് ഗ്ലാസാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചായ എടുത്താലാണെങ്കിലും പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി വയ്ക്കാനായിട്ടുള്ള എളുപ്പം ഉണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പം ഉണ്ട് പിന്നെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണമെന്ന് മാത്രം